ഹലോ ഓക്കെ ആ ടി ടിവി ഷോപ്പ്ല്ലേ അതെ ഞങ്ങള് ഒരു പുതിയ വണ്ടിയ എടുക്കാൻ വേണ്ടീട്ട അന്േഷാൻ വേണ്ടി വിളിച്ചായിരുന്നു സ്കൂട്ടിയാണ് ഉദ്ദേശ ബൈക്കിപ്പൊത വരുന്നദേെച്ച ഓപ്ഷ ആയിട്ടേ സ്്പൂട്ടി ഉദേശിക്കാ ജറ്റ് വന്ന് ഒന്ന ഇഞ്ചി പെടറ്റോ അതെ ഇതെർത എനിക്ക് ഫാമിലി എൻ്റെ സ് സ സ്വാിച്ചുന്നന്ാേണ്ട് എ രാണ്ണ്ട്േസങ്ങള് ച ജൂസന്ാ വേണ്ടീട്ടും ആ ഫാമിലി അല്ലെൻ് ഓഫീസ് പോവൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെെയാ എത്ര മീല വച്ച കിട്ടും എത്ര എത്ര മീലേച്ചച്ച് കിട്ടും

അതെ അതെ അമ്പത്തിൻ്റെതായല്ലേ ഒര് നാപ്പത്തച് പീർ കിട്ടൂലേ അടൊക്കത്തില് ഒ നാപ്പത്തഞ് കിട്ടൂലേ ഓ പിന്നെ അതുപോലെ തന്നെ എത്ര റേറ്റ്ന്നെയ കൊററ്റ് പറഞ്ഞു ഫുൾ പേയ്മെൻറ് എത്ര വരുംൊത്തും പറ വണ്ട റോഡ് റോഡ് വറക്കാന്

വ ലക്ഷൻ ചള്ളറായിരുന്നു ഏതൊക്കെ കളറ് വരുന്നേ ഞാായി ഇൂ ബ്ലാക്ക് വരുരുന്നുണ്ടോ

ആ റേറ്റ് ആ

പിന്നെ ഓഫീസ് ഓഫീസ് എവിടെ ഇരുന്നേ കോയിിക്കോട് കോഴിക്കോട് എവിടെയുന്ന ഷോറൂം വരുന്നേ

ഓത് പഴസൻ തൊണ്ട ആടെ ആതെ ഞങ്ങള അവിടത്തെ മെയിൻ സ്റ്റാഫാണോ

ആ സെൽ ആ ഓക്കെ സൽസ് മാനേജറ ആയിരിക്കുംല്ലേ ആ പിന്നേ അതുപോലതന്നെ വേറെ എന്താണ്െയാ ഫ ഫുൾ പേ്മെൻ്റ് ഓൺ സ്പോട്ട അല്ലേ ഇഎംഐ ഓപ്ഷൻ ഇണ്ടോ ഇഎംഐ അങ്ങനെ എന്തെങ്കിലും ആ എംഐ അല്ലെങ്കില് ലോണ് പൈസിലേ എത്ര കൊല്ലം കൊണ്ട്ണ്ടടി ചേർക്കണ്ടരരുന്നു

ആ

ആ അതെ ഓക്കെ ഓക്കെ ഫസ്റ്റില് എന്തായാലുംര് പത്ത് എത്ര പൈസ തരണ്ടി വരല്ലേ ഒരു മാർജിനൽ പേയ്മെൻറ്ാണ് ചെയ്യേണ്ടിെരും ഓക്കെ അത്െത്ര വെരുന്നു ആ ഓക്കെ ആ ഞാൻ വിളിക്കാം വിളിക്കാം

ഓക്കെ